വാർത്താ മാധ്യമം ഇന്ന് വളരെ അധപതിച്ച ഒരു പ്രവിഷ്യായിട്ടാണ് ഞാൻ വാർത്ത മാധ്യമത്തെ കാണുന്നത് കാരണം വാർത്തകൾ എല്ലാ വാർത്താ ചാനകളും ഒന്നുകിൽ ഒരു ജാതിയുടേ പേരിൽ മാത്രം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരുടെ അടിമയായി മാത്രമാണ് അവർ പ്രവർത്തിക്കുന്നത് അവരെ റേറ്റ് കൂട്ടുവാൻ വേണ്ടി അവർ ആവശ്യമില്ലാതെ വാർത്തക്കൾ വളരെ അധികമായി വലിച്ചു നീട്ടുന്നതായിട്ട് നാം കാണാറുണ്ട് എക്സാംപിൾ നമ്മൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മടെ യുദ്ധങ്ങളെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ചില വാർത്ത ചാനലുകൾ നമ്മൾ കേൾക്കുമ്പോൾ എത്ര തീവ്രവാദികൾ ആയിരുന്നാലും അവർ തീവ്രവാദികളല്ല നല്ല യോദ്ധാക്കളാക്കി മാറ്റുന്നു ചില ചാനലുകൾ അവരെ മഹാതീവ്രവാദികളാക്കി മാറ്റുന്നു നമ്മുടെ മനസ്സിനെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അവർ വാർത്തകൾ തരുന്നു ഇതിനകത്ത് ഒരു സത്യസന്ധവും ഇല്ല എന്നുള്ളതാണ് നാം ഒരു മൂന്ന് നാല് വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ നിസാരം എന്നോർത്ത് കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയിൽ നടന്ന സംഭവം ഒരു ആക്സിഡൻ്റിൻ്റെ അവർ ആ വാർത്ത നമ്മളെ കാണിച്ചു കരയിച്ചു കരയിച്ചു കരയിച്ചു മാറ്റുകാണ് കാരണം അതുപോലെ അവർക്ക് റേറ്റിങ്ങ് കിട്ടുവാൻ വേണ്ടി ആവശ്യമില്ലാത്ത നമുക്ക് അവർ കാണിക്കരുതാത്ത ദുഖങ്ങൾ സീൻ പോലും ഇവർ നമ്മെ വളരെ അധികമായി ആ കാണിച്ചു സമയം വളരെ വലിച്ചു നീട്ടുന്നു അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത വാർത്തകളെ നമുക്ക് കേൾക്കണ്ടാത്ത ആവശ്യമില്ലാത്ത വാർത്തകൾ ഒത്തിരി വാർത്ത മാധ്യമത്തിൽ ഇപ്പോൾ വരുന്നുണ്ട് പത്രങ്ങളാണെങ്കിലും എല്ലാ പത്രങ്ങളും കേരളത്തിലെ ഞാൻ കേരളത്തിലെ എല്ലാ പത്രങ്ങളും മിക്ക ദിവസവും വായിക്കുന്ന ഒരു വ്യക്തിയാണ് കേരളത്തിലെ എല്ലാ പത്രങ്ങളും ഒന്നുകിൽ ഒരു സമുദായത്തിൻ്റെ കീഴിൽ മാത്രം പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അവർ ഒരു രാഷ്ട്രീയത്തിൻ്റെ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു അങ്ങനെയുള്ള ഒരു ചാൻസിലേക്ക് മാത്രം വാർത്ത മാധ്യമങ്ങൾ വളർന്നു കൊണ്ട് ഇരിക്കുന്നു സത്യസന്ധമായ ഒരു വാർത്താ രീതികളും ഇന്ന് കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം പക്ഷെ പുതിയതായി ന്യൂ ജനറേഷൻ പിള്ളേർ ഓപ്പൺ ചെയ്യുന്ന ചില വാർത്ത ചാനലുകൾ ഉണ്ട് അത് വളരെ മനോഹരമായിട്ട് പോവുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു സത്യസന്ധമായി പുതിയ ഒരു തലമുറ ഈ വാർത്ത ചാനലിലേക്ക് സത്യസന്ധമായി കടന്നു വരുന്ന അന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പഴയ ആ സാഹചര്യം അതായത് ഒരു രണ്ടായിരത്തിന് മുന്നേ ഉള്ള ആ വാർത്തകൾ ദൂരദർശൻ്റെ ഒക്കെ ആ വാർത്ത എത്ര സത്യസന്ധമായ വാർത്തകളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇനി അങ്ങനെ ഒരു കാലങ്ങളിലേക്ക് അതായത് അവരുടെ ഈ ഒരു ചാനലിലെ വാർത്ത മാത്രം അവർ വാർത്തകൾ ഉണ്ടാക്കുന്നു അതാണ് ഏറ്റവും വലിയ ചെറിയ പ്രശ്നങ്ങളെ അത് ജാതിപരമായിട്ടുള്ള ഒരു കുഞ്ഞു പ്രശ്നങ്ങളായിരിക്കാം അവർ ആവശ്യമില്ലാത്ത ഒരു ഇതുവായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ചാനൽ ചർച്ചക്കാരെ കൊണ്ട് വരുന്നു ചർച്ച ചെയ്യുന്നു വെറുതെ സമയം കളയുന്നു ഈ ഒരു രീതി മാറ്റി നല്ല ഒരു വാർത്താ വിതരണ സംപ്രേഷണ രീതി കൊണ്ടു വരുന്ന ഒരു ചാനൽ നമ്മുടെ ഭാരതത്തിന് എന്നെങ്കിലും ഉണ്ടാകും എന്ന് തീർച്ചയായിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ വരണം അങ്ങനെ വന്നില്ലെങ്കിൽ പുതിയ തലമുറ നശിച്ചു പോകുവാനായിട്ട് വളരെ വലിയ ഒരു കാരണമാണ് തീരും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു